കേരളത്തിലെ പ്രധാന വകുപ്പുകള് അല്ലെങ്കിൽ ഏജൻസികള് ഏതൊക്കെയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വകുപ്പുകളുന്നു പറഞ്ഞാൽ വിദ്യാഭ്യാസമുണ്ട് പിന്നെ അതുപോലെത്തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങള് നീതിന്യായ വ്യവസ്ഥ പിന്നെ സഹകരണ വകുപ്പ് കൃഷി വകുപ്പ് അങ്ങനെയുള്ള ഓരോന്നിനും ഓരോന്നിനും നമുക്ക് അതാത് വകുപ്പുകളുണ്ട് അതിനു ഓരോന്നിനും അത് അത് ചെയ്യാനുള്ള മന്ത്രിമാരും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ആരോഗ്യ മന്ത്രി ഇപ്പോൾ നമുക്ക് വീണ ജോർജാണ് അങ്ങനെയുള്ള ഒരുപാടിതുണ്ട് അവരൊക്കെ നമുക്ക് മര്യാദക്ക് ചെയ്തു തരുന്നുണ്ടോ അവരുടെ കർത്തവ്യങ്ങൾ മര്യാദക്ക് നമുക്കു നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടോന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വക പറയാണെങ്കി നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്ന് തന്നെ പറയാം പക്ഷെ നമുക്ക് വേറെ ചിന്തിക്കുകയാണെങ്കിൽ അവര് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമുക്കെങ്ങനെ അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളും അതൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒരുപാട് കുട്ടികള് അതായത് പൈസ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഡിഗ്രി അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള തുടർപഠനം പ്ലസ് ടു വരെ നമുക്ക് സർക്കാര് പിന്നെ കോളേജ് സ്കൂളുകളില് പഠിക്കാൻ പറ്റുള്ളൂ പക്ഷെ പ്ലസ് ടു കഴിഞ്ഞിട്ട് തുടർപഠനത്തിനാണ് നമുക്കേറ്റവും കൂടുതല് ക്യാഷ് കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പം അതൊന്നും ഇല്ലാതെ കുട്ടികളൊരുപാട് പഠിക്കാനൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം പക്ഷെ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ ഏതൊരു വകുപ്പാണെങ്കിലും അവരവരുടെ നില നിൽപ്പ് നോക്കിയിട്ടേ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയുള്ളു